എൻ്റെ ആദ്യത്തെ പ്രൊഡക്ട് എന്ന് പറയുന്നത് എൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് എൻ്റെ മൊബൈൽ ഫോൺ റെഡ്മിയുടെ നോട്ട് ഫോർ എന്ന ഫോണാണ് ഇത് ഞാൻ വാങ്ങിക്കുന്നത് രണ്ടായിരത്തിപ്പതിനേഴിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് വർഷം ഇനി പ്രധാന പോസിറ്റീവ് എന്തെന്ന് വച്ചാൽ ഈ ആറ് വർഷമായിട്ടും ഫോണിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് പിന്നെ പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വേഗത വളരെ മികച്ചതാണ് യാതൊരു വിധ എന്താ പറയുക സമയക്കുറവോ ഒന്നും ഇതിന് ഉണ്ടാവാറില്ല പിന്നേ അടുത്തൊരു ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ശബ്ദം മികച്ച ശബ്ദമാണ് ഇതിൻ്റെ സ്പീക്കറുകൾക്കുള്ളത് ഇപ്പോൾ നമ്മൾക്കൊരാളെ വിളിക്കുകയാണെങ്കില് മികച്ച ശബ്ദം മികച്ച ശബ്ദം ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് പിന്നേ പിന്നെ ഇതിന്റെയൊരു പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേറ്ററി ഇതിൻ്റെ ബേറ്ററി പെർഫോമൻസ് മികച്ചതാണ് കാരണം രണ്ടായിരത്തിപ്പതിനേഴിൽ ഈ ഫോണെടുക്കുമ്പോൾ തന്നെ ഇതിന് നാലായിരം എം എ എച്ച് ബേറ്ററിയാണ് കാരണം ആ സമയത്ത് ഏറ്റവും മികച്ച ബേറ്ററി പെർഫോമൻസുള്ള ഫോൺ തന്നെയായിരുന്നു ഇത് ഇപ്പോഴും ഇതില് ചാർജ് മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് ചാർജ് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ചൂട് ചൂടാവാറില്ല ഇപ്പോൾ ഇറങ്ങുന്ന പല മൊബൈൽ ഫോണുകളും പെട്ടന്ന് തന്നെ ഹീറ്റാവാറുണ്ട് എന്നാൽ ഈ ഫോൺ മൊബൈൽ അധികം ഹീറ്റാവാറില്ല അതുകൊണ്ട്തന്നെ ഇതൊരു മികച്ചൊരു ഗുണം തന്നെയാണ് പിന്നെ ഒരു പിന്നെ അടുത്തത് പറയുകയാണെങ്കില് ക്യാമറ പിന്നെ ക്യാമറയും മികച്ചതാണ് അത്യാവശ്യം നല്ല നല്ല ഫോട്ടോസ് നമുക്കിതിലെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ഫോട്ടോസ് മികച്ച നന്നായി നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസ് മികച്ചത് തന്നെയാണ് ക്യാമറയും മികച്ചത് തന്നെയാണ്